ഈ ശരീരഭാരം കൂട്ടാൻ സ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമ്മളിപ്പോൾ നെയ്യ് ഉള്ള ഭക്ഷണങ്ങളും നെയ്യ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരം നല്ലവണ്ണം തടി വയ്ക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് പിന്നെ പച്ചമരുന്നുകളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരം നല്ലവണ്ണം തടിക്കും അപ്പം ആ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്നത് പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പയർ വർഗ്ഗങ്ങൾ പയർ കാര്യം ഇപ്പോൾ ചപ്പ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നല്ലവണ്ണം നമ്മൾ ഭക്ഷണം നല്ലവണ്ണം കഴിക്കുവാണെങ്കിൽ നല്ലവണ്ണം തടിക്കും പിന്നെ ഈ ബീഫ് കാര്യങ്ങളൊക്കെ ബീഫിലൊക്കെ നല്ലവണ്ണം കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പിന്നെ ആവശ്യമായിട്ടുള്ള പല സാധനങ്ങളും ചെയ്യുക എന്താണ് പറയുക നമ്മൾ കഴിക്കാറുണ്ട് അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള ശരീരഭാരം കൂട്ടാനും എല്ലാ കാര്യത്തിനും ആവശ്യമുള്ളതാണ് പിന്നെ പയർ വർഗ്ഗങ്ങൾ കഴിക്കുക പിന്നെ ചീര അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുക പ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഈ നാട്ടുവൈദ്യന്മാരും അങ്ങനെ തന്നെയാണ് പറയാറ് ഇങ്ങനത്തെ ഈ പഴം നമ്മളെ നേന്ത്രപ്പഴം കൂടുതലായിട്ട് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരം ഭാരം നമുക്ക് വല്ലാണ്ട് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ശരീരഭാരം കൂട്ടാൻ നമുക്ക് സാധിക്കും